ഹലോ ആ അതെയതെ എവിടെ നിന്നാണ് വിളിക്കുന്നത്

ആ തുടങ്ങി ക്ലാസ്സ് തുടങ്ങിയല്ലോ എന്താ ഇത്ര വൈകിയത് ആ ആ ആ ഇത് എൽ കെ ജി സെക്കൻ്റ് സ്റ്റാൻ്റേർഡോ ആ എൽ കെ ജിയിലോ അതിപ്പം ഇന്ന് നോക്കേണ്ടി വരും ആ രണ്ട് കുട്ടികളല്ലേ ആ ഒരു വർഷത്തേക്കാണോ ഒരു വർഷത്തേക്ക് ഒരു വൺ ലാഖ് ആവും എൽ കെ ജി എൽ കെ ജി ആ ഫുഡൊക്കെ കൊണ്ടുവരണം ആ ബസ്സുണ്ട് സ്കൂൾ ബസ്സുണ്ട് പിന്നെയതിന് വേറെ കൊടുക്കേണ്ടി വരും ആ യൂണിഫോമിന് വേറെ അത് ഒന്ന് അമ്പത് വരും ആ രണ്ട് അൻപത് പിന്നെ അതിൻ്റെ പുറമേ സ്കൂൾ ബസ്സിൻ്റെ ഫീ വരും നല്ല ആ അല്ല അത് നമ്മൾ തന്നെ ആക്കിത്തരും അളവെടുത്തിട്ട് ആ പൈസ വേണം അല്ല ഇത് ആ വൺ ലാഖിൽപ്പെടും

ബുക്ക് തരും ഞങ്ങളിവിടുന്ന് തരും അല്ല അതിതൊക്കെ ഇതിൽപ്പെടും സ്കൂള് സ്കൂൾ ബസ്സിൻ്റെ മാത്രം വേറെ കൊടുത്താൽ മതി ആ ഉണ്ട് ആ ഉണ്ട് ഉണ്ട് ഇപ്പോൾ അതിന് കാശ് സ്കൂൾ ബസ്സിൻ്റെയൊക്കെ വേറെ ഡൊണേഷൻ വരും

ആ ഇന്ന് വരുന്നുണ്ടോ പ്രൂഫുകളെന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി പിന്നെ ടി സി ആ പിന്നെ പാരൻസിൻ്റെ അഡ്രസ്സ് പ്രൂഫുള്ള എന്തെങ്കിലും ആധാർ കാർഡോ ഓക്കേ ആയിക്കോട്ടെ താങ്ക് യു